ഇപ്പോൾ ഞാനുപയോഗിക്കുന്ന പല രീതിയിലുള്ള സർക്കാർ ആപ്പുകൾ കാര്യങ്ങളൊക്കേയുണ്ട് കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അതായത് ട്രെയി റെയിൽ വേയിൽ നമ്മൾ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ടൈമിന് വണ്ടി ഉണ്ടോ അങ്ങനത്തേ കാര്യങ്ങളൊക്കേ നോക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആപ്പുകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പം നമ്മൾ അത് കൂടുതലായിട്ടും പ്രയോജനപെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടും എല്ലാ കാര്യങ്ങൾക്കും അതിനകത്തു നടക്കുന്നതാണ് ഇപ്പോൾ ട്രെയിൻറ്റെ ഓരോ ടൈമും കാര്യങ്ങളൊക്കേ അതിനകത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആപ്പുകൾ ഉണ്ട് പിന്നേ നമുക്ക് ഇപ്പോൾ ബീവറേജിൽ ആദ്യമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെവ്ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ലി ആപ്ലിക്കേഷനുണ്ട് അത് സർക്കാർ തന്നേ ആ കൊറോണ ടൈമിൽ ഉണ്ടാക്കിയ ഒരു ആപ്പാണ് അപ്പം അത് ഉപയോഗിച്ചിട്ടാണ് അന്ന് അന്നത്തേ സമയത്ത് മദ്യവും കാര്യങ്ങളൊക്കേ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അത് അന്നത്തേ കാലത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ

കേരള സർക്കാരിൻറ്റെ ബേ ഇതാണെങ്കിലും അപ്പം ആ രീതിയിലുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്